പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും പിന്നെ ചിലപ്പം ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാകും ചന്ദ്രനിലിനി കുറച്ച് വർഷങ്ങൾ കുറച്ചു വർഷങ്ങൾ അല്ല ഇനിയൊരു അനേകായിരം വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ മനുഷ്യജീവൻ ചന്ദ്രനിലും കാണാം ഭൂമിയിലെ പോലെ ആൾക്കാർ ചന്ദ്രനിലും ഉണ്ടാകും അത് അങ്ങനെയൊക്കെയാണ് അന്യഗ്രഹത്തീന്ന് ജീവി വന്നു എന്നൊക്കെ പറയല്ലോ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അന്യഗ്രഹജീവി അവിടെ നിലനിൽക്കുന്നുണ്ടാകും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കുറേ ഫാൻറ്റസി സിനിമകളൊക്കെ കാണുമല്ലോ നമ്മൾ അപ്പോൾ അതിലൊക്കെ ഉണ്ടാകുമല്ലോ ഏതെങ്കിലും അന്യഗ്രഹ ജീവി ഭൂമിയിലോട്ടു വരുന്ന ഏലിയൻസ് വരുന്നതൊക്കെ ആയിട്ട് അപ്പം അതൊരു വിശ്വാസമാണല്ലോ അപ്പോൾ ഞാനും കരുതും അവിടെ ഏതെങ്കിലും ഒക്കെ ഉണ്ട് മറ്റ് ഗ്രഹങ്ങളിലും ഉണ്ട് എന്തായാലും സൂര്യനൊഴിച്ച് ബാക്കിയെല്ലാ ഗ്രഹത്തിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുംന്ന് വിചാരിക്കും വിശ്വസിക്കുന്നേം വിചാരിക്കുന്നേം ആളാണ് കാരണം സൂര്യൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല ആഗ്രഹത്തിൻ്റുള്ളിൽ ജീവിക്കാൻ പോലും പറ്റില്ല കാരണം അതികഠിനമായ ചൂടാണല്ലോ അപ്പം ബാക്കി എല്ലായിടത്തും എന്തേലും തരത്തിലുള്ള ജീവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏലിയൻസോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ട്